ആ ഞാൻ നോക്കാം

ഹലോ ആ ഞാൻ കുക്ക്

ഹലോ സാർ ഞാൻ കുക്കാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കല്ലുമ്മക്കായ് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് ഓർഡറ് കിട്ടീട്ട് ഇണ്ടേനു അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത് നിങ്ങൾക്ക് അത് ആണോ ഇഷ്ടം എന്ത് എങ്ങ കല്ലുമ്മക്കായ് ബിരിയാണി ടേസ്റ്റിയാണ് പറഞ്ഞിട്ട് ഉണ്ടല്ലേ ആ കല്ലുമ്മക്കായ് ബിരിയാണി കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്തിട്ടാണോ വേണ്ടത് അല്ലെങ്കിൽ മസാല മാത്രാമാണോ വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് ആ ആ നിങ്ങൾ ഏത് സ്ഥലത്തുന്നാണ് സാർ വരുന്നത് ശരി ശരി സാർ നമുക്ക് ആ ബിരിയാണി നാളെ ഉച്ചത്തേയ്ക്ക് മതിയാവോ എപ്പോൾ എത്ര പേർക്ക് ഉള്ളതാന്ന് സെറ്റ് ചെയ്യേണ്ടത് സാറെ എത്ര പേർ നാല് പേർക്ക് ഉള്ളത് ഓക്കെ അപ്പോൾ ആ ചോദിച്ചോളൂ എന്താണ് ബിരിയാണി എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ കുമരകം തന്നെ നിങ്ങൾ റിസോർട്ടിൽ അല്ലല്ലോ അത് ഞാൻ ഇവിടെ പുറത്തുന്ന് കുക്ക് ചെയ്യുന്ന ആളാണ് അതെ എൻ്റെ പേര് ശാരദ ആ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ മെയിനായിട്ട് ഈ കല്ലുമ്മക്കായ് ബിരിയാണിയും നാളെ ഉച്ചത്തേയ്ക്ക് റെഡി ആക്കി വെക്കുന്നത് ആയിരിക്കും ആ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ബ്രേക്ക്ഫാസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് നിങ്ങൾ രാത്രിയിൽ ഇടയ്ക്ക് വിവരം തന്നാൽമതി അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി വെച്ചോളും ശരി സാർ വേറെ ഒന്നും ഇല്ല നാളെ അല്ലേ ശരി ആ ആ ശരി സാർ ഓക്കെ